പ്രാദേശിക സ്കൂളുകളിലൊക്കെ പ്രവേശനത്തിനുള്ള നടപടി ക്രമം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രക്ഷിതാക്കൾ പോകണം കൂടെ കുട്ടി കുട്ടീനേയും കൊണ്ട് രക്ഷിതാക്കൾ പോകുക പിന്നെ അതായത് അവരുടെ ആധാറ് പിന്നെ ഇപ്പം അതായത് വേറെ ഏതെങ്കിലും സ്കൂളില് പഠിച്ച ടി സി എത്ര വരെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉള്ള രേഖകള് അങ്ങനത്തെ രേഖകളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് മാത്രമെ പുതിയൊരു അതായത് അപ്പം അപ്പോയ്ൻമെൻറ്റായിട്ട് അവര് കുട്ടികളെ എടുക്കുകയുള്ളു അപ്പം അതൊക്കെയാണ് നടപടി ക്രമങ്ങള് പിന്നെ ടീസിയില് കുട്ടികളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമല്ലൊ കുട്ടികള് അതായത് നല്ല കുട്ടികളാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണല്ലോ എല്ലാവരും എടുക്കുക അപ്പോൾ അങ്ങനത്തെ പിന്നെ മാതാപിതാക്കൾ എന്തായാലും കൂടെ വേണം മാതാപിതാക്കൾ ഒന്നുമില്ലേൽ അച്ഛൻ എന്നല്ല അമ്മ എന്തായാലും കൂടുതൽ വേണം കൂടെ വേണം അല്ലെങ്കിൽ ഗാർഡിയന്മാര് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികള് അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേറെ വിദേശത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കില് അവരുടെ കൂടെ ഗാർഡിയൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ വേണം ഫീസ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തുക അഡ്മിഷനായിട്ട് അഡ്മിഷൻ ഫീസ് ഉണ്ടാകും സ്കൂളിലോട്ടുള്ള അഡ്മിഷൻ ഫീസ് ഉണ്ടാകും അത് സൗജന്യമല്ല പ്രാദേശിക സ്കൂളുകളല്ലേ അപ്പം അഡ്മിഷന് ഒരു ഫീസ് കൊടുക്കണം പിന്നെ പി ടി എ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കൊടുക്കണം